മറ്റുള്ളവരെ അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുഞ്ഞ് മക്കൾ തൊട്ട് വലിയവരെ വരെ നൃത്തം പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അത് എൽ കെ ജി എൽ കെ ജി തൊട്ട് എൽ കെ ജി പിള്ളേരെ യു കെ ജി പിള്ളേരെയൊക്കെ ഡാൻസ് പഠിപ്പിക്കുക എന്നുപറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റാ ഇന്ട്രെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ എങ്ങനെ കളിക്കുന്നു അങ്ങനേ അവർ കളിക്കുള്ളൂ അത് കുറച്ച് പാടാണ് അവരെ കളിച്ച് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം മുമ്പോട്ട് പഠിച്ച് വലിയ ക്ലാസിലൊക്കെ പഠിച്ച പിള്ളേരാണെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ ഓൾറെഡി പഴയ ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ച ആ സ്റ്റെപ്പുകൾ അങ്ങനെയെല്ലാം അവരുടെയിൽ ഓർമ്മയുണ്ടാവും പക്ഷെ അപ്പം നമ്മളൊരു പാട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ കാണിക്കുന്ന സ്റ്റെപ്പിലോട്ട് വരാൻ അവർക്കൊരു ബുദ്ധിമുട്ടോ മടിയോ അല്ല അവർക്ക് അത് അങ്ങോട്ട് കിട്ടത്തില്ല കാരണം അവരുടെ കയ്യിൽ ഓൾറെഡീ സ്റ്റെപ്സുകൾ ഉള്ളത് കൊണ്ട് ചെറുപ്പം മുതലേ ഡാൻസ് പഠിച്ച് വരുന്ന പിള്ളേരായതുകൊണ്ട് മുതിർന്നവർക്ക് പാട്ട് കിട്ടിയാൽ സ്വയം കളിക്കാം നമ്മളത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യം ഇല്ല അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റെപ്പിനേക്കാളും ഉപരിയായിട്ട് അവർ അവരുടെ കയ്യിലുള്ള സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കാനായിരിക്കും അവർക്ക് താൽപര്യപ്പെടുന്നത് എന്നാൽ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരോ സ്റ്റെപ്പുകൾ ഒന്നേ രണ്ടേ അല്ലെങ്കിൽ തൈ തൈ തിത്തൈ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്സുകളിട്ട് കൊടുക്കുന്നത് അനുസരിച്ചെ ആ കുഞ്ഞുങ്ങൾ ചെയ്യൊള്ളൂ അപ്പം അവർക്ക് നമ്മുടേതായ രീതിയിലേക്ക് വരാൻ സാധിക്കും ആ കുഞ്ഞുങ്ങളെ കളിച്ച് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം എൽ കെ ജി യു കെ ജി ലൊക്കെ ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എത്രമാത്രം ഒരു ഡാൻസ് എങ്ങനെ ആയിരിക്കണൊ അത് അതുപോലെ നമ്മൾ എങ്ങനെ കളിക്കുന്നോ അതേ ആ കുഞ്ഞുങ്ങൾ ചെയ്യുള്ളൂ അപ്പം നമ്മൾ ഇപ്പം താഴ്ന്ന് നിന്ന് സ്റ്റെപ്സുകളൊക്കെ അരമണ്ഡലത്തിൽ നിന്ന് നമ്മൾ കളിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളും ആ അരമണ്ഡലത്തിൽത്തന്നെ നിന്ന് അവർ കളിക്കും എന്നാലോ നമ്മൾ നിവർന്ന് നിന്നിട്ട് സ്റ്റെപ്സുകൾ അത്യാവശ്യം പഠിപ്പിച്ചു അവർ ഡാൻസും പഠിച്ചു പാട്ട് ഓൾറെഡി മുഴുവൻ പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽപ്പോലും അവർ എന്താ വെച്ചാൽ അവർ കളിക്കുമ്പം നമ്മൾ നിവർന്ന് നിന്നാണ് കളിക്കുന്നതെങ്കിൽ അവരും ആ വടിപോലെ തന്നെ നിന്നേ കളിക്കുള്ളൂ എന്നാൽ പഠിപ്പിക്കുന്ന നമുക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നുവെച്ചാൽ ഫുൾടൈമ് നമ്മൾ പഠിപ്പീര് കഴിഞ്ഞിട്ടും ഫുൾടൈമ് അവരെ അങ്ങനെ തന്നെ കളിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള നടുവിനൊത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ വലിയ പിള്ളേരെ പഠിപ്പിക്കുമ്പം നമുക്ക് ഇച്ചിരി എളുപ്പമാണ് കാരണം നമ്മൾ ആ ജസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കാണിച്ച് കൊടുത്താൽ മതി ഡാൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ഓൾറെഡി അങ്ങനെത്തന്നെ ആ സ്റ്റെപ്പുകൾ കളിച്ചെടുക്കും അത് എല്ലാവരെയും നമ്മൾ ഇവരെ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അവരാ അരങ്ങേറ്റം വരുന്ന ഒരു സമയം നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരിയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആ ഡാൻസ് അത് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം നമ്മളത് അവർ നമ്മൾ പഠിപ്പിച്ച ആ കാര്യം അവർ അരങ്ങേറി അത് കളിക്കുന്നത് കാണുമ്പോൾ അതുപോലെത്തന്നെ കളിക്കുന്നത് കാണുമ്പോൾ കൊച്ചു പിള്ളേരെ ഒക്കെ നമ്മൾ ചിലപ്പം ആക്ഷൻ കാണിക്കേണ്ടി വരും അതുപോലെത്തന്നെ നമുക്ക് മിണ്ടാൻ മേലാത്ത സ്കൂളുകളിൽ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്ര പഠിപ്പിച്ചാലും അവരുടെ ഒപ്പം നമ്മൾ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞപോലെ തന്നെയാണ് എൽകെജിലേം യുകെജിലേം പിള്ളേരുടെ കാര്യം നമ്മൾ ടീച്ചേഴ്സ് സൈഡീൽ നിന്ന് ഇപ്പം നമ്മൾ കൂടുതൽ വീഡിയോകളിലൊക്കെ കാണാറുണ്ട് സ്കൂളുകളിലത്തെ ആനിവേഴ്സറിയെക്കെ വരുമ്പം അവരുടെ ഒപ്പം തന്നെ ടീച്ചർമാരും നിന്ന് കളിക്കുന്നത് പണ്ടൊന്നും വീഡിയോകൾ അങ്ങനെ കൂടുതലൊന്നും ഇല്ലാത്തത്കൊണ്ട് ആരും അറിയുന്നില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡീ നിന്ന് പിള്ളേരെ കളിച്ച് കാണിച്ചാലേ അവരും ആ ഒരു രീതിയിലേക്ക് കളിച്ച് വരത്തുള്ളൂ അതുപോലെത്തന്നെ വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവിശ്യം ഇല്ല നമ്മൾ ജസ്റ്റ് സൈഡിൽ നിന്നാൽ മതി അവർ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മറന്നാൽ തന്നെ നമ്മൾ ജസ്റ്റ് കാണിച്ച് കൊടുത്താൽ മതി മിണ്ടാൻ മേലാത്ത സ്കൂളുകളിൽ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അതുപോലെത്തന്നെ കുറവുകളുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ സ്കൂളുകളിലൊക്കെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ അവർക്ക് ഓരോ സ്റ്റെപ്പും അവരെ കാണിച്ച് പക്ഷെ എന്നാൽ അവർ അതിമനോഹരമായിട്ട് നമ്മൾ പഠിപ്പിച്ചതിനെക്കാളും അതിമനോഹരമായിട്ടാണ് അവർ കളിക്കുന്നത് പക്ഷെ കുഞ്ഞുങ്ങളെ നമ്മൾ ഫ്രണ്ടിലിരുന്ന് ഓരോ സ്റ്റെപ്പുകളും കളിച്ച് കാണിക്കുകയും ചിലപ്പം രാത്രി ആനിവേഴ്സറിയൊക്കെ നൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ലൈറ്റ് ഉപയോഗിച്ച് അപ്പം ഈ ലൈറ്റിൻ്റെ വെട്ടം നമ്മുടെ കയ്യിലെ ലൈറ്റ് കണ്ടാണ് അവർ ഓരോ സൈഡിലേക്ക് മാറണമെങ്കിൽ സൈഡ് കാണിച്ചു കൊടുക്കുമ്പം ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ലൈറ്റ് ഓടിച്ച് കാണിച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ കാണിച്ച് കൊടുത്താലേ ഉള്ളൂ ആ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ അതുപോലെത്തന്നെ ഈ മന്ദബുദ്ധി പിള്ളേരായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ആണെങ്കിൽ അവർ നല്ല ഈ സാധാ നമ്മൾ എന്താ പറയുക നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെക്കാളും ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ഈ രണ്ട് സെക്ഷന്ലുള്ള കുഞ്ഞുങ്ങളാണെന്ന് വേണം പറയാൻ കാരണം അവർക്ക് ആ അതിനോടുള്ള ഇൻട്രസ്റ്റും പിന്നെ നമ്മൾ കാണിച്ച് കൊടുക്കുന്ന ആ ഒരു ഇത് പറഞ്ഞ് കൊടുക്കുന്നത് അവർക്ക് ഉള്ള കഴിവിനെ അവർ വർദ്ധിപ്പിച്ചെടുക്കാൻ അവർ ഒത്തിരി ഒത്തിരിയേറെ താൽപര്യപ്പെടുന്നവരാണ് പ്രയത്നിക്കുന്നവരാണ്

എൽ കെ ജി യു കെ ജി യിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും അങ്ങനെത്തന്നെ നമ്മൾ എങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നോ എത്ര മാത്രം അരമണ്ഡലത്തിൽ നമ്മൾ നിന്ന് കളിച്ച് കാണിക്കാവോ അത്രമാത്രം അര മണ്ഡലത്തിൽ അവരും നിക്കും നമ്മളെന്നാ പതിയാൽ നിന്ന് കളിക്കുകയാണെങ്കിൽ അവരും അങ്ങനെ എന്നാൽ മടുത്തിട്ട് നമ്മൾ നേരെ നിന്ന് കളിക്കുകയാണെങ്കിൽ അവരങ്ങനെ കാണിക്കുള്ളു അതായത് കുഞ്ഞുങ്ങൾ അപ്പം നമ്മൾ ഇതിൽനിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ത് എന്തും നമ്മൾ ചെയ്യുന്നോ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട് പഠിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിൽ ഇതും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം അപ്പം വലിയ കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ കുഴപ്പം ഇല്ല സ്റ്റെപ്പ് പഠിച്ച പിള്ളേരാണെങ്കിൽ ചെറുപ്പം മുതലേ പഠിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ നാല് തൊട്ട് ഒരു പത്ത് വരേയുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പാട്ട് ഇട്ട് കൊടുത്താൽ മതി അവർ തനിയെ കളിക്കും നമ്മൾ കൂട്ടത്തിൽ കളിക്കേണ്ട കാര്യം ഇല്ല ജസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ഒരു സൈഡിൽനിന്നാലും ജസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കാണിച്ച് കൊടുത്താൽ മതി അവർ ആ സ്റ്റെപ്പിനെ ഇട്ട് അവർ കളിച്ചെടുത്തോളും അവരെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലെ ഡാൻസ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് തനിയെ കളിച്ച് പോരാനും നമ്മുക്കൊരു ഡാൻസ് ടീച്ചറിൻ്റെയോ ഒരു ഡാൻസ് ക്ലാസ്സിൻ്റെയോ ഒന്നും ആവശ്യം ഇല്ല അവർ തനിയെ കളിച്ചോളും